ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ഭജന ട്രൂപ്പ് ഉണ്ട് അവർ എല്ലാവരും അമ്പലത്തിലാണ് ഒത്തു കൂടുക അതായത് അടുത്തുള്ള ഞങ്ങളുടെ അടുത്ത് മൂന്ന് നാല് ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രത്തിൽ ചേ ഒത്ത് എല്ലാ ഞായറാഴ്ച്ചയും ഒത്ത് ചേരുകയും അവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് ഭജനകൾ പാടുകയും ചെയ്യുന്നു അവർ സംഗീത ഉപകരണങ്ങൾ മദ്ദളം ഞ മദ്ദളം ഭജന പാടുന്ന വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ഭജന പാടുകയും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഭജന പാടി പ്രസാദം എല്ലാം വിതരണം ചെയ്ത് അമ്പലം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അതിനു ശേഷമാണ് പിരിഞ്ഞ് പോവുക ഈ ഭജനാ ട്രൂപ്പിൻ്റെ വക വേറെ അമ്പലങ്ങളിലൊക്കെ പോയി ഭജന പാടും അതേപോലെത്തന്നെ സത്സംഘ പരിപാടിയിൽ ചേർന്ന് എല്ലാവരും ചേർന്ന് നാരായണീയം ഭാഗവതം രാമായണം മുതലായ ഗ്രന്ഥങ്ങൾ നന്നായി ഒരുമിച്ച് എല്ലാവരും ഈണത്തിൽ പാടുകയും ചെയ്യാറുണ്ട്